മലയാള ഭാഷയുടെ ചില പ്രത്യേകതകളെന്നു പറഞ്ഞ് കഴിഞ്ഞാല് നമ്മളുടെ ഈ നാട്ടില് എന്താ എന്ന് ചോദിക്കുന്നത് വേറൊരു നാട്ടിൽ എന്തര് എന്ന് ചോദിക്കുന്ന നാടുകളുണ്ട് അങ്ങനെ ചില ചില സവിശേഷകൾ മലയാള ഭാഷയ്ക്കുണ്ട് നമ്മുടെ മലയാള ഭാഷകളിൽ പല പല വ്യാഖ്യാനങ്ങളും ഉച്ഛാരണങ്ങളും എല്ലാം വേറെ വേറെ തരത്തില് സംസാരിക്കുന്നുണ്ട് മലയാളം ഒന്നാണെങ്കിലും ഉച്ചാരണവും വ്യാകരണവുമൊക്കെ വേറെ രീതിയില് പല തരത്തിൽ അത് നടക്കുന്നുണ്ട് നമ്മൾ ഒരു കാര്യങ്ങൾ എ എന്താ എന്ന് ചോദിക്കുന്നതിന് പകരം അവിടെ മറ്റൊര് നാട്ടില് അത് വേറൊരു ഭാഷയിൽ മലയാളം തന്നെ ആയിരിക്കാം പക്ഷെ അതിനെ നീട്ടും കുറുക്കുകളുമൊക്കെ ഉണ്ടായിരിക്കാം